ഒരു പെയിൻ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിലെ ആദ്യം നമ്മൾ ആ എന്താണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിൽ കണ്ടിരിക്കണം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വ്യക്തമായിട്ട് നമുക്കറിയണം എന്നാലേ നമുക്ക് ആ പെയിൻ്റിങ്ങിനെ പറ്റി ആ പെയിൻ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ശേഖരിക്കാൻ വസ്തുക്കൾ ശേഖരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമുക്കൊരു ഒരു ഫാബ്രിക്കിലാണ് ഒരു തുണിയിലാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെത്തെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം അതായത് ഏത് ബ്രഷ് ഏത് ടൈപ്പ് ബ്രഷുകളാണ് നമുക്ക് വേണ്ടത് പെയിൻറ്റ് ബ്രഷുകൾ പിന്നെ ഏത് ടൈപ്പ് പെയിൻറ്റ് ഏത് പെയിറ്റ്കളാണ് വേണ്ടത് ഇപ്പോൾ തുണിയിലാണ് പെയിൻറ്റ് ചെയ്യുന്നത് എന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ അതിനെ അനുയോജ്യമായിട്ടുള്ള പെയിന്റുകൾ നമ്മൾ സെലക്ട് ചെയ്യണം ആ പെയിന്റുകൾ സെലക്ട് ചെയ്തതിന് ശേഷം അതും അതിൻ്റെ കൂടെ തന്നെ അതിന് നമുക്കിപ്പോൾ ആവശ്യമുള്ള വേറെ സാധനൾ അതിൽ ഡീറ്റൈലിങ് ആഡ് ചെയ്യാൻ പറ്റുന്ന പോലെത്തെ വേറെ പെയിന്റുകൾ അതുപോലെ ത്രീ ഡി ലൈനറുകൾ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടി ഇരിക്കുന്നു അതിന് അതുകൊണ്ട് നമുക്ക് എന്ത് എന്ത് പെയിൻ്റിങ് ചെയ്യുന്നതിന് മുമ്പും അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം